മൂന്നാർ റിസോർട്ടിലെ ആളല്ലേ ഞാനവിടെയൊരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടുഡേ നൈറ്റത്തേക്കാണ് ഞങ്ങൾ എത്താൻ പാകത്തിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കണേ ആ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എത്ര സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും മാക്സിമം അല്ല നിങ്ങൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹിൽസും കാര്യങ്ങളൊക്കെയില്ലേ കുറേ ഫുഡ്ഡ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ നിങ്ങളിതിൽ കൊടുത്തപോലത്തന്നെ ഫുഡ്ഡ്സും കാര്യങ്ങളും അല്ലാണ്ട് ലൊക്കേഷൻ അപ്പോൾ ഊബറും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയോ

അത്രയേ അങ്ങനെ ഉള്ളുവല്ലേ അല്ല അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എത്രയാണ് ഇതിപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത് രണ്ടുപേർക്കുകൂടി ഒരയ്യായിരം ഉറുപ്പ്യേൻ്റെ റൂമാണ് ഞങ്ങള് രണ്ടു ദിവസത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ റൂം ഊബർ സെപ്പറേറ്റ് എക്സ്പെൻസ് എടുക്കണം അല്ലേ അപ്പോൾ അവിടെ ആ ആ അപ്പോൾ ആ നൈറ്റത്തെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് തന്നെയല്ലേ പറഞ്ഞപോലെതന്നെ ഇതിൽ പറഞ്ഞപോലെതന്നെ അതാക്കിത്തരും അല്ലേ അപ്പോൾ ഇതോ ഫുഡ്ഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നോൺ വെജും വെജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയില്ലേ അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നോൺവെജ് അവൈലബിൾ അല്ലയെന്നാണ് വെജ് മാത്രമേ ഉള്ളൂയെന്നാണ് അവിടെ ഞങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പെൻസ് ഒരു നമ്മളെ കയ്യിൽ നിന്നുതന്നെ ഫണ്ടെടുത്തിട്ട് പുറത്തു നിന്നുള്ള ഫുഡ്ഡ് ഹോട്ടലിൽ വന്നു കഴിക്കുന്നതിനു വലിയ ഇഷ്യൂ ഒന്നുമില്ലല്ലോ ആ പിന്നേ റൂമിൽ സ്മോക്കിങ്ങ് ചെയ്യുന്നതിനു വലിയ സീനൊന്നുമില്ലല്ലോ സ്മോക്കിങ്ങ് റൂമല്ലേ പിന്നെ നമ്മൾ മദ്യപിക്കുന്ന ആൾക്കാരാണ് അതുപോലെ മദ്യപിച്ചാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉണ്ടാവില്ലല്ലോ അല്ലേ ബാർ തൊട്ടുമുകളിൽ തന്നെ കാണാം അതുകൊണ്ട് വിഷയമൊന്നും ഉണ്ടാവില്ല അല്ലേ അവിടുത്തെ കസ്റ്റമർ സർവീസ് പ്രശ്നമൊന്നുമില്ല അല്ലേ അല്ല അവിടുത്തെ കസ്റ്റമർ സർവീസ് ഒക്കേ പക്കാ ആയിരിക്കുല്ലോ അല്ലേ അപ്പോൾ നമ്മൾ വേറെയൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചന്വേഷിച്ചു എന്നെ ഉള്ളൂ ഞങ്ങളവിടെ എത്താൻ എത്തുന്നതിനു മുൻപ് അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പം ഞങ്ങളെന്തായാലും വൈകുന്നേരം ഒരഞ്ചുമണിക്കുള്ളിൽ അവിടെയെത്തും പാക്കേജിൽ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ ചിലപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സ് അവിടുള്ള ഫ്രണ്ട്സ് ചിലപ്പം നൈറ്റ് ലേറ്റ് നൈറ്റ് വരുമായിരിക്കും ചെറിയൊരു പാർട്ടിയാണ് ചെറിയൊരു പാർട്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ വരുന്നതുകൊണ്ട് വലിയ ഇഷ്യൂസൊന്നും അവർ വരുമ്പോൾ വലിയ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഉറപ്പാണോ ജസ്റ്റ് റെൻ്റിനാണ് ഇങ്ങോട്ട് കിട്ടുന്നത് ഇല്ല ഞങ്ങളെ കയ്യിൽ വണ്ടിയുണ്ടേ ഞങ്ങൾ വണ്ടിയെടുത്തിട്ടാണ് വരുന്നത് പക്ഷേ അത് അവിടുന്ന് അങ്ങനെ ഓടി യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഊബെറിൻ്റെ കാര്യം ചോദിച്ചത് അപ്പം എന്നാൽ ശരിയെന്നാൽ വൈകിട്ടാവുമ്പോഴത്തേക്കും അല്ല ഇന്ന് വൈകിട്ടെത്തും നമ്മൾ ബുക്ക് ചെയ്തിരുന്നല്ലോ നേരത്തേ പറഞ്ഞിരുന്നല്ലോ ആ ആ അപ്പോൾ ഞങ്ങളെന്നാൽ വൈകിട്ടേയ്ക്ക് അങ്ങോട്ടേക്കെത്തിയേക്കാം എന്നാൽ ആ ശരി ഓ താങ്ക് യു